എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുക ആണെങ്കിൽ നമ്മൾ ബൈക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വെല്ലുവിളി നിറഞ്ഞ ചില യാത്രകൾ എന്ന് പറയുക നമ്മൾ കൊല്ലം ചെങ്കോട്ട പാത അതുപോലെ തന്നെ കൊല്ലം ആര്യംങ്കാവ് കല്ലം കുറവന്താവണം ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര നമുക്ക് കുറച്ച് വെല്ലുവിളി തന്നെയാണ് മീൻസ് പിന്നെ അതൊരു കാട്ടുപാതകളിലൂടെ പോകുന്ന കാട്ട് പാതകളിലൂടെ പോകുന്ന ഏരിയ ഏറിയ ആയതുകൊണ്ട് അതിലേക്കൂടെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ജാഗ്രത പുലർത്തേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യം ആയാലും ശരി അതുപോലെ തന്നെ മൃഗങ്ങൾ ഇറങ്ങുന്ന കാരണം ആയാലും ശരി അത് കുറച്ച് വെല്ലുവിളിയുള്ള ഒരു റൂട്ട് തന്നെയാണ് ഇപ്പം കൊല്ലം കുറുവന്താവളം റൂട്ട് അതുപോലെ തന്നെ കൊല്ലം ചെങ്കോട്ട കൊല്ലം പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ എല്ലാം നമുക്ക് യാത്ര വളരെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അത്ര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ കാര്യമായാലും ശരി അതുപോലെ തന്നെ കാട്ടിലൂടെയുള്ള യാത്രയായാലും ശരി കാട്ടിലൂടെ വന്യ മൃഗങ്ങളുള്ള കുറച്ച് ശല്യങ്ങളുണ്ട് ആ ഒരു റൂട്ടിൽ വന്യമൃഗങ്ങളുള്ള ശല്യങ്ങളുണ്ട് അതുകൊണ്ട് ആ റൂട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യണത് ഇത്തിരി വെല്ലുവിളികൾ നമ്മൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കൊല്ലം ജില്ലയിലെ അമ്പനാട് ഇസ്തറ്റന്ന് പറഞ്ഞാലുണ്ട് ആ അമ്പനാട് ഇസ്തറ്റിൽ നിന്നും നമ്മൾ പിന്നെ വേറൊരു റോസ്മല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ റൂട്ടും ദുരിതം തന്നെയാണ് ആ ഒരു റൂട്ടും ദുരിതം തന്നെയാണെന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നമുക്ക് ആ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ എം സി റോഡ് എൻ എച്ച് അതിലൂടെയുള്ള യാത്രകളും ഇപ്പം കുറച്ച് ദുരിതം തന്നെയാണ് ദുരിതം തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രികളൊന്നും ശരിയാക്കത്തത് കൊണ്ട് അതിന്റെതായ ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പോഴും നേരിടുന്നുണ്ട് അതുപോലെ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സി റോഡിൽ നമ്മൾ ആ അടൂരിന്ന് കോട്ടയം പോകുന്ന വഴിയിൽ കുറച്ച് എം സി റോഡിൻ്റെ വികസനം ഉണ്ടായെങ്കിലും പാത വലുതാക്കിയെങ്കിൽ പോലും ഇപ്പോഴും റോഡ് ഇപ്പോഴും ഗട്ടറുകളോ അതൊന്നും ശരിയാക്കാത്തത് കൊണ്ട് ബ്ലോക്കുകൾ ശരിക്ക് വരുന്നുണ്ട് റോഡിൽ ബ്ലോക്കുകൾ ശരിക്ക് വരുന്നു പറഞ്ഞാൽ യാത്ര നമുക്ക് അടുർ ടു കോട്ടയം റൂട്ടിലുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ള യാത്ര തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ അടൂരന്ന് കായംകുളത്തേക്ക് പോകുന്ന ഒരു റോഡ് കറ്റാനം വഴി പോകുന്ന റോഡന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു മുന്നൂറ് മീറ്ററിനുള്ളിൽ നിറയെ ഹമ്പുകളുണ്ട് ഈ ഹമ്പുകൾ കാരണം നമുക്ക് അതായത് വാഹനം ശരിക്കും ഓടിച്ചോണ്ട് പോവാൻ പറ്റത്തില്ല അതൊരു ബുദ്ധിമുട്ട് അത്രയും ഹമ്പുകളുടെ ആവശ്യമൊരിക്കലും ഈ റോഡിലില്ല അത്രയ്ക്ക് പ്രശ്നമുള്ള ഒരു റോഡുമല്ല ഇപ്പം കായംകുളം അടൂർ റൂട്ട്ന്ന് പറയുന്നത് അത് ശരിക്കും അ സ്കൂളുകളുള്ളിടത്തോ അല്ലെങ്കിൽ ഗതാഗതം കൂടുതലുള്ളിടത്തോ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങളുള്ളിടുത്തോ ഒക്കെ നമ്മൾ ഹമ്പുകൾ വെക്കുന്നുണ്ട് തെറ്റില്ല അല്ലാതെ ആവശ്യത്തിൽ കൂടുതൽ ഹമ്പുകൾ വെച്ച് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ആവശ്യം ഇല്ലാത്തൊരു നിലപാടാണ് ആ റൂട്ടിനെക്കുറിച്ചും എനിക്ക് അത്രയും ഒരു മോശമായൊരു അഭിപ്രായമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ അഭിപ്രായം ആ പറയാനുള്ള വെല്ലുവിളി നിറഞ്ഞ റൂട്ട് ഞാൻ പോയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ കൊല്ലം കുറവന്താവുന്ന റൂട്ടാണ് കൊല്ലത്തന്ന് നമ്മൾ പത്തനാപുരം വഴി പത്തനാപുരത്തുന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് കാട്ടിലേക്കാണ് കാട്ടുവഴിയുള്ള റോഡിലേക്കാണ് ആ കാട് വഴിയുള്ള റോഡിൽ കൂടെ നമ്മുടെ ബസ് കേരളാ സർക്കാരിൻ്റെ ബസ്കൾ വരെ ഉണ്ട് ബെസുകളുണ്ടെങ്കിൽ പോലും ഒരു ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മളെ വാഹനത്തെ ആക്രമിക്കപ്പെടാം ആനയായാലും ശരി മറ്റ് വന്യമൃഗങ്ങളായാലും ശരി എപ്പം വേണേലും നമ്മളെ ആക്രമിക്കപ്പെടാം അതായത് നമുക്ക് നമ്മുടെ ലൈഫിനൊരു ഇതില്ല സുരക്ഷയില്ല എന്നുള്ളതാണ് ആ റൂട്ടിൽ നമുക്ക് ഒരു പ്രശ്നമുണ്ടാകുന്ന റൂട്ട് എന്ന് പറയുന്നത് അതാണ് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട വഴി ഗവി വഴി കുമ്മളി എന്ന് പറയുന്ന ഒരു റൂട്ടൊണ്ട് ആ റൂട്ടിലൂടെ പോയപ്പോഴും കുറേ വെല്ലുവിളി നമുക്ക് ഉണ്ടായിട്ടുണ്ട് മെൻസ് പത്തനംതിട്ടയിലും നമ്മൾ ഗവി കുമിളി വഴി മെൻസ് വണ്ടിപെരിയാറ് വഴി നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഗെവി റൂട്ട് കുമിളിക്കുള്ള ആ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്നും വണ്ടിപ്പെരിയാർ എത്തി അവിടെ നിന്നും ഗെവി കുമിളി റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്ന ഒരു റൂട്ട് തന്നെയാണ് ആ റൂട്ട് തന്നാണെന്ന് പറയാൻ കാരണം ആ റൂട്ടിൽ ഏത് സമയത്തും മലയിടിഞ്ഞ് വീഴാം ഏത് സമയത്തും മരങ്ങൾ റോഡിലേക്ക് വീഴാം അതുപോലെ മൃഗങ്ങളാൽ ആക്രമിക്കപ്പെടാം അങ്ങനെയുള്ള കുറച്ച് ദുരിതങ്ങളൊക്കെ ഉണ്ട്